എന്റെ പേര് അക്മൽ എന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസം ആകുന്നുള്ളൂ എന്റെ ഒരു ഫ്രണ്ട് റെക്കമൻഡ് ചെയ്തിട്ട് എടുത്തതായിരുന്നു ഈ ഫോൺ എനിക്ക് എന്താണ് പറയുക ഈ റേറ്റിനൊന്നും ഈ ഫോൺ ഇല്ല കാരണം ക്യാമറ ഒന്നും ഒരു ഒട്ടും ഒരു ക്ലിയർ ഇല്ല സെൽഫി ഒക്കെ ഒരുമാതിരി ഇരിക്കുന്നു ബാക്ക് ക്യാമറ ആണെങ്കിൽ നമ്മൾ ഇത്ര റേറ്റ് ഒക്കെ കൊടുത്ത് എടുക്കുമ്പോൾ നമ്മൾ സൂമിംഗ് കാര്യങ്ങളൊക്കെ നോക്കും സൂമിംഗ് കാര്യങ്ങളൊന്നും ഇല്ല വളരെയധികം മോശം ഫീഡ്ബാക്ക് ആണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് തീരെയില്ല ഇരുപത്തിനാല് മണിക്കൂറും കുത്തിയിട്ടുകൊണ്ട് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഗെയിം ഒക്കെ നമുക്ക് ഇപ്പോൾ ഗെയിം ഒക്കെ കളിക്കണം എങ്കിലും വളരെ ഹാങ്ങ് ആയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് എടുക്കുമ്പോൾ ഈ ഒരു ഫോൺ വളരെ നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഹാങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കാര്യവും സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അപ്പോൾ ആരും ഇത് എടുത്ത് കുടുങ്ങേണ്ട ഈ റേറ്റിനൊക്കെ നമുക്ക് ഇതിനേക്കാൾ നല്ല ഫോൺ കിട്ടും അപ്പോൾ ശരി